ഹലോ ആ ഇത് കാന്താരി റെസ്റ്റോറെന്റ് തന്നെയല്ലേ ആ സാറെ ഞാൻ നിങ്ങളുടെ അവിടുന്ന് ഒരു ബിരിയാണി ഓഡർ ചെയ്തിരുന്നു അത് എന്നാ നാറ്റമാണ് സാറേ അത് നിങ്ങളെന്തുവാ അരി കഴിവത്തൊന്നുമില്ലേ ഇങ്ങനെയാണോ ഒരു കസ്റ്റമറിന് സാധനം അയച്ചു തരുന്നത് അതുകൊണ്ട് ഞാന് ദേണ്ടെ പാഴ്സല് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചയയ്ക്കുകയാണ് തിരിച്ചു ഞാന് കൊടുത്തുവിടുന്നുണ്ട് ആളുടെ കൈവശം ഞാന് മുടക്കിയ പൈസ എനിക്ക് തിരിച്ചു തരണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാമ്പിള് ഞാന് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഞാന് ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഞാന് കേസ് കൊടുക്കാതിരിക്കണോ എന്നുണ്ടെങ്കില് നിങ്ങള് എന്റെ പൈസ പെട്ടെന്ന് റീഫണ്ട് ചെയ്യണം ഓക്കെ സാര്